പ്രാചീന ഭാരതത്തിൽ ഉയോഗിച്ചിരുന്ന ഭാഷയാണ് സംസ്കൃതം സംസ്കൃത ഭാഷയിൽ നിന്നും ആണ് പിന്നീടുള്ള ബാക്കിയുള്ള ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളും ഉരിത്തിരിഞ്ഞ് വന്നത് അതിനു മുമ്പ് ഒരു ഭാഗത്തിൽ നിന്ന് ഉരിത്തിരിഞ്ഞ് വന്നതാണ് മലയാളം മലയാളഭാഷയ്ക്ക് ആദ്യം ലിപികൾ ഉണ്ടായിരുന്നില്ല അതിനു ശേഷം വളരെ കാലം സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതിന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ലിപി ഉണ്ടായത് പക്ഷേ പ്രാചീന മലയാളഭാഷകൾ ഇന്നത്തുള്ള പുരാ പുതിയ മലയാളഭാഷകളുമായിട്ട് വളരെ വ്യത്യസ്തമായ ഉച്ചാരണ രീതിയാണ് ഉണ്ടായിരുന്നത് അത് സംസ്കൃതത്തിൻ്റെ പല പദങ്ങളും മലയാളഭാഷയിലേക്ക് കയറി വന്നിട്ടുണ്ട് സംസ്കൃതത്തിൽ നിന്ന് അതിൻ്റെ അല്ലെങ്കിൽ നാമം നാമകരണം ചെയ്തിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നാണ് സംസ്കൃതവും മലയാളവും വളരെയധിയകം ഭാ ഭാഷകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തമിഴിൽ തമിഴുമായിട്ട് ബന്ധപ്പെട്ട് തമിഴും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ തമിഴിലുള്ള കുറേ ഭാഷകളും അല്ലെങ്കിൽ വാക്കിന് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഉച്ചാരണങ്ങളും മലയാളവുമായിട്ട് സാമ്യമുള്ളവയാണ് അതിനുള്ള കർണ്ണാടകവും ആന്ധ്രയും ആന്ധ്രയിലുള്ള തെലുങ്കും എല്ലാം സംസ്കൃതഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു സാമ്യം ഇതിനകത്ത് നമുക്ക് എവിടെയും കാണാൻ പറ്റും സംസ്കൃതഭാഷ മൂല ഭാഷ ആയതിനാൽ അതിൽ നിന്ന് ഉരിത്തിരിഞ്ഞ് വന്ന പലഭാ പല വാക്യങ്ങളും അല്ലെങ്കിൽ വാക്കുകളും മലയാളത്തിലേക്ക് വായ്പ്പയായിട്ട് എടുത്തിട്ടുണ്ട് ഒരു കാലത്ത് സംസ്കൃതവും മലയാളവും ചേർന്നുള്ള ഒരു കൂടിക്കുഴഞ്ഞ ഒരു ഭാഷാ ശൈലിയായിരുന്നു മലയാളത്തിനുണ്ടായിരുന്നത് പിന്നീട് ശേഷം കുഞ്ചൻ നമ്പ്യാരുടെ കഴിഞ്ഞ അതിനുള്ള കാലഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ ഭാഷ ഒരു പ്യുവർ ഭാഷയായിട്ട് മലയാളത്തിലേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നത് വന്ന് തുടങ്ങിയത് അതിന് മുമ്പ് സംസ്കൃതവും മലയാളവും കൂടിച്ചേർന്ന ഒരു ഭാഷയാണ് ഉപയോഗപ്പെടുത്തിരിയിരുന്നത് ഈ തമിഴും മലയാളവും ചേർന്നുള്ള ഒരു ഭാഷാശൈലി ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു കന്നഡ കേരളത്തിൻ്റെ വടക്കേ ഭാഗ ഭാഗമായ കർണ്ണാടകമായിട്ട് യോജിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ക കർണ്ണാടകവും മലയാളവും കൂടിച്ചേർന്നൊരു ഭാഷയാണ് ഉപയോഗപ്പെടുത്തികൊണ്ടിരുന്നത് അപ്പം ചുരുക്കിപ്പറഞ്ഞാൽ മലയാളത്തിലേക്ക് പല ഭാഷകളിൽ നിന്നും വാ വാക്കുകൾ കടം കൊണ്ടിട്ടുണ്ട് ചില ഭാഷകളെല്ലാം ഹിന്ദിയിൽ നിന്ന് പോലും നമ്മുടെ മലയാളത്തിലേക്ക് വാക്കുകൾ കടം കൊണ്ടിട്ടുണ്ട് ഒരു ഭാഗം ഓരോ വാക്കുകൾക്ക് ചില വാക്കുകൾക്ക് ചില ഫാഷയിലുള്ള അർഥത്തിൻ്റെ അതേ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകൾ വേറെ ഭാഷയിൽ ഇല്ലാതാകുന്ന സമയങ്ങളിലാണ് ഈ വാക്കുകൾ വായ്പ്പയായിട്ട് ഇല്ലെങ്കിൽ അവിടെ നിന്ന് കടം കൊള്ളുന്നത് ഉദാഹരണം തന്നെ പക്കാ എന്നുള്ളത് ഹിന്ദി വാക്കിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് മലയാളത്തിൽ ഇല്ലാത്തതു കൊണ്ട് മലയാളത്തിലും പക്കാ എന്ന വാക്ക് അതേ പടി ഉപയോഗപ്പെടുത്തുന്ന രീതിയെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഭാഷയിലുള്ള എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ഭാഷകളിലേക്കും അവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമായിട്ടുള്ള എല്ലാം കടം കൊള്ളുന്ന ഒരു അവസ്ഥാ വിശേഷം നമുക്ക് ഉണ്ടാക്കാൻ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഷകൾ ഒന്നിനോടൊന്ന് നമ്മൾ നോക്കുമ്പോൾ കുറേ ഭാഷകളിലെല്ലാം ഒരേ വാക്കുകൾക്ക് ഒരേ അർത്ഥം വരുന്ന കുറേ വാക്കുകൾ എല്ലാ ഭാഷകളിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് ചില ഭാഷകളിൽ ഉള്ള വാക്ക് അതേ അർത്ഥത്തിൽ ലിപികൾക്ക് മാത്രം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള ഭാഷകളിൽ ഉപയോഗപ്പെടുത്തുന്നു മലയാളം ഇതേ വാക്കുകൾ തന്നെ വേറെ ഭാഷകളിൽ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് ചില വാക്കുകൾക്ക് അർത്ഥം യോജിപ്പിക്കാൻ ആ ഭാഷയിലുള്ള അതേ വാക്കുകൾക്ക് തന്നെ കഴിയുന്നുള്ളു അല്ലാതെ മറ്റൊരു ഭാഷയിൽ ഈ അർത്ഥം ഈ അർത്ഥ ഗാംഭ ഗാംഭീര്യത്തോടു കൂടി മറ്റൊരു ഭാഷയിൽ ഈ അർത്ഥത്തിന് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഈ അർത്ഥത്തിന് സമാനമായൊരു പദം കണ്ടെത്താൻ കഴിയാതെ വരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഷകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വായ്പ്പാ ഇല്ലെങ്കിലെന്നാൽ കടം കൊള്ളുന്ന ഒരവസ്ഥ വരുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലേക്കു തന്നെ ഇന്ത്യയിലുള്ള പല ഭാഷകളിൽ നിന്നും ധാരാളം വാക്കുകൾ കടം കൊണ്ടിട്ടുണ്ട് അത് ഭാഷകളിൽ നിന്ന് ഇങ്ങനെ കടം കൊള്ളുമ്പോഴാണ് ഭാഷ അല്ലെങ്കിൽ അവരുടെ ആ വൊക്കാബിലറി വളർന്ന് വരുന്നത് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഭാഷക്ക് വളരെ വളർച്ചയുണ്ടാകാൻ കഴിയുന്നുണ്ട് അപ്പോൾ പ്യുവറായ ഇല്ലെങ്കിൽ ശുദ്ധമായ മലയാളം എന്നൊരു ഭാഷാ ശൈലി തന്നെ നമുക്ക് മാറ്റം വന്ന് കൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളിലുമായിട്ട് എല്ലാ ഭാഷകളിലും മറ്റുള്ള ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം കടം കൊള്ളുന്നൊരു അവസ്ഥാ വിശേഷം ഉണ്ടായികൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷകളിലെല്ലാം ഏകദേശം ഒരേ സാമ്യമായ വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും